സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം വളരെ പ്രാധാന്യം ഉള്ളതാണ് അത് എല്ലാവരുടെയും ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കുവാണ് കാരണം പണ്ടത്തെ കാലത്ത് ഒരു ഫോൺ വിളിക്കണമെങ്കിൽ ഒരു കിലോമീറ്റർ അകലെയെങ്കിലും പോയിട്ട് വേണം ഫോൺ ചെയ്യാൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം പറഞ്ഞാൽ മറ്റുള്ളവരെ അറിയിക്കാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എൻ്റെ അമ്മയൊക്കെ ആണെങ്കിലും എൻ്റെ വലിയമ്മയും വലിയച്ഛനുമൊക്കെ ആണെങ്കിലും ആ കഥകൾ അവരുടെ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പം ഒരു വണ്ടി സൗകര്യമില്ല അതും വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ വണ്ടി സൗകര്യങ്ങളൊക്കെ പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമല്ല എല്ലാ സൗകര്യമുണ്ട് ഇപ്പോൾ ഫോണിൻ്റെ ഉപയോഗം ആണെങ്കിലും അതെ എല്ലാ വീടുകളിലും എല്ലാ പിള്ളേരുടെ കയ്യിലും ഇപ്പോൾ കൊച്ചു പിള്ളേരുടെ കയ്യിൽ വരെയാണ് സ്മാർട്ട് ഫോൺ ഉള്ളത് വലിയമ്മമാരുടെയും വലിയച്ഛൻ്റെയും പണ്ടത്തെ ആൾക്കാരുടെ കയ്യിലൊക്കെ അവരുടെ അവരൊക്കെ ഉപയോഗിക്കാതിരുന്ന ഉപയോഗിക്കാത്തതുമായ ഇപ്പോഴും അവരുടെ കയ്യിൽ ഉണ്ട് ഫോണും കാരണം മക്കളൊക്കെ വെളിയിലായിരിക്കുമല്ലോ അപ്പം അവരെയൊക്കെ വീഡിയോ കോൾ ചെയ്യാനും ഒരുപാട് എല്ലാവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചാണ് സ്മാർട്ട് ഫോണുകൾ ആദ്യമേ ചെറിയ ടൈപ്പ് ഫോൺ ആയിരുന്നു അല്ല ആദ്യമേ ലാൻഡ് ഫോൺ ആയിരുന്നു ഈ പല വീടുകളിലൊക്കെ ലാൻഡ് ഫോൺ ഒക്കെയായിരുന്നു അതിങ്ങനെ വീട്ടിൽ പോയി വിളിക്കുന്നു പിന്നെ അത് ചെറിയ ഫോൺ ആയി അതുപോലെതന്നെ അതിപ്പം അതിലും കുറച്ചുകൂടി വലുതായി ഇപ്പം സ്മാർട്ട് ഫോൺ ഐഫോൺ അതുപോലെയൊക്കെയാണ് സ്മാർട്ട് ഐഫോൺ ഒക്കെ ഒരുപാട് പൈസയാണ് പൈസ ഉള്ളവർ വാങ്ങും സാധാരണക്കാർ സാദാ ഒരു ഫോൺ വാങ്ങിക്കും ഇപ്പം വെളിയിലൊക്കെ ഉള്ളവരുടെ ആണെങ്കിലും വീഡിയോ കോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ അവർ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനാണെങ്കിലും നമ്മൾ കത്തിലൂടെ ആണ് നമ്മൾ ചെയ്തിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമല്ല വീഡിയോ കോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിക്കാം വോയിസ് മെസ്സേജ് ഇടാം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ അറിയിക്കാം ഇപ്പം എന്തെങ്കിലും ഒരു വാർത്തയൊക്കെ അറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു വിവരങ്ങൾ തന്നെ അറിയണമെങ്കിൽ നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് എടുക്കുക ഇല്ലെങ്കിൽ യൂട്യൂബ് വഴി കാണുക അതുപോലെതന്നെ ഇപ്പം ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത കുട്ടികൾ ആരും ഇല്ല എല്ലാവർക്കും ഉള്ളതാണ് ഇൻസ്റ്റാഗ്രാം എല്ലാവരുടെയും പേരിലും ഒരുപാട് അക്കൗണ്ട് ഒക്കെ അക്കൗണ്ടുകളൊക്കെ ഉണ്ട് ഒന്ന് റീച്ച് ആവാൻ വേണ്ടിയാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് അപ്പം എല്ലാവരെയും നാല് പേർ അറിയണം അല്ലെങ്കിൽ പത്ത് പേരെ അറിയുന്ന അറിയണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇൻസ്റ്റഗ്രാം ഒക്കെ തുടങ്ങിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലാണ് പുതിയ അപ്ഡേഷൻ ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ റീൽ ഇടുന്നു പോസ്റ്റ് ഇടുന്നു അപ്പോൾ ഇതൊക്കെ പലരുടെയും ജീവിതം ഈ മൊബൈൽ വഴി തന്നെ ജീവിക്കാൻ ഓരോ യൂട്യൂബ് ചാനൽ ഒക്കെ ഉള്ളവരുണ്ടല്ലോ അപ്പോൾ അതിലൂടെ ജീവിക്കുന്നവരുണ്ട് ഓരോ വ്ളോഗർമാരൊക്കെ ഓരോ ആൾക്കാരും അങ്ങനെ ജീവിക്കുന്നവരുണ്ട് ഇപ്പം ഞാൻ തന്നെ കുറച്ച് പേരുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് അതിലൂടെ അവർ ജീവിക്കുന്നവരാണ് അതിലൂടെ പൈസ കിട്ടി റിച്ച് ആയി റിച്ച് ആകുന്നവരൊക്കെയുണ്ട് അതിലൂടെ ഇങ്ങനെ എന്താണ് വീട് പണിയുന്നവരൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഞാനിങ്ങനെ അവരുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അപ്പം നമ്മളും അവരെ സപ്പോർട്ട് ചെയ്താൽ അല്ലേ അവരുടെ അക്കൗണ്ടും റീച്ച് ആവുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാനൊക്കെ വീഡിയോ കാണുക വെറുതെയിരിക്കുമ്പോഴാണ് അല്ലാതെ എപ്പോഴും ഒന്നും കാണാറൊന്നുമില്ല അപ്പം അതുതന്നെ സ്മാ എല്ലാവരുടെയും ജീവിതം മിക്കവരുടെയും ഒരു ഭൂരിഭാഗം ഒരു തൊണ്ണൂറ്റി ഒൻപത് പേരുടെയും ജീവിതനിലവാരം മാറ്റിമറിച്ച ഈ സ്മാർട്ട് ഫോണുകൾ കാരണം എത്രയോ പേർ എത്രയോ അത്യാവശ്യങ്ങളുണ്ട് അപ്പം സാധാരണക്കാരാണെങ്കിലും ഒരാൾക്കെങ്കിലും ഒരാളുടെ കയ്യിലെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാതെ ഒന്നും ഇരിക്കില്ല എല്ലാവരുടെയും കയ്യിൽ ഉണ്ട്